കാര്ഷിക മേഖലയില് കേരളത്തിൽ ഒരുപാട് പുതിയ സംരംഭങ്ങള് നമ്മൾ എല്ലാവരും കാണാറുള്ളതാണ് അതിൽ ഒരുപാട് പേർ നല്ല രീതിയിൽ കർഷകരായി മാറുന്നുമുണ്ട് പക്ഷേ എന്നാൽപോലും ഒരുപാട് പേരിലേക്ക് ഇതിന്റെ ബോധവൽക്കരണം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ രൂപീകരിക്കുന്നുണ്ട് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി കുടിയാന് പരിഷ്കരണങ്ങളും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും കൃഷിയെ എന്നും വലുതാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ